ആ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സംഗീതത്തോടും ഡാൻസിനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലേ മുതലേ എനിക്ക് ഈ വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുന്നവരോടൊക്കെ ഇഷ്ടമാണ് കാരണം ഞാൻ ഈ വീണയൊക്കെ വായിക്കുന്ന കാണാൻ കൊതിയോടെ നോക്കി നിൽക്കാറുണ്ട് പഷേ നമുക്ക് അന്നൊന്നും അതിനോടുള്ള അതിനൊക്കെ പഠിക്കാനുള്ള സാഹചര്യമോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അപ്പം എനിക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഡാൻസ് കുറച്ച് പഠിച്ചു എനിക്ക് ഡാൻസ് കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഡാൻസ് പഠിക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ പിന്നെ നമ്മളെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി ഇച്ചിരി മോശമായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് പുറത്തോട്ടൊക്കെ നമ്മളെ പഠിക്കാനൊന്നും വിടത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നത് കൊണ്ടും എൻ്റെ ആ ആഗ്രഹങ്ങളൊക്കെയങ്ങ് നിന്നുപോയി എനിക്ക് ശരിക്കും ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കാനായിട്ട് പാട്ട് പാടുന്നവരെ കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാദ്യോപകരണം ഭയങ്കര ഡാൻസ് കളിക്കുന്നവരെയൊക്കെ പിന്നെ എനിക്ക് നാടകത്തിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമുണ്ട് എനിക്ക് നാടകവും കാര്യങ്ങളൊക്കെ വായിക്കുന്നത് ഇഷ്ടമാണ് കാണുന്ന ഇഷ്ടമാണ് അന്നൊക്കെ പള്ളിപ്പെരുന്നാളിനും ഉത്സവങ്ങൾക്കും ഒക്കെ ഈ നാടകങ്ങളൊക്കെ വരുമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ കാണാൻ പോവും കാണാൻ പോവുമ്പോൾ അവരൊക്കെ അഭിനയിക്കുമ്പോൾ ഞാനോർക്കും അയ്യോ ഞാനാരുടെയെങ്കിലും എന്നോർക്കാറുണ്ട് അതൊക്കെ അല്ലെങ്കിൽ ഞാനവരെ കണക്ക് സ്വയം അഭിനയിച്ച് നോക്കാറുണ്ട് ഇപ്പം അങ്ങനെയൊക്കെ ഞാൻ സങ്കല്പിക്കുമായിരുന്നു പിന്നെ ഇച്ചിരി വലുതായി വിവാഹമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ആഗ്രഹം കുറഞ്ഞെങ്കിലും പക്ഷേ വീണ്ടും നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്കൊരു സിനിമാനടി ആയാൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ ആ സിനിമയിലെ ആ കഥാപാത്രങ്ങൾ വരുമ്പം ഞാൻ വീട്ടീൽ വച്ച് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കും ഞാൻ ടി വിയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണാടിയുടെ മുന്നിൽ വച്ച് ഞാൻ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നോക്കും ഞാൻ അങ്ങനെ ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നോക്കും അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് എനിക്കൊരൂ ഇപ്പോൾ ഡാൻസറാകണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു സിനിമാനടി ആകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ശരിക്ക് പറഞ്ഞാൽ പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട് ആ പാടണമെന്നുതന്നെ അപ്പം ഞാനെപ്പോഴും ഓർക്കും ദൈവമേ എനിക്കങ്ങനെ ദൈവം അങ്ങനെയൊരു കഴിവ് തന്നില്ലല്ലോ എനിക്ക് പാടാനൊരു കഴിവ് ദൈവം തരികയാണെങ്കിൽ എത്ര നന്നായിരുന്നു അന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ടേ അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കും ഞാൻ ആ ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ തോന്നുകയും ഒരു സുപ്രഭാതത്തിൽ എനിക്ക് നല്ലൊരു സ്വരം തന്നുകൂടെ ദൈവം നീ പാട്ട് പാടെന്ന് പറയുകയായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു ദൈവം എനിക്കതുപോലൊരു കഴിവ് നീ തന്നില്ലല്ലോയെന്ന് കൊതിച്ചപ്പോഴൊക്കെ സങ്കടപ്പെടാറുണ്ട് പിന്നെ എനിക്ക് ഈ ഗിത്താറൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നമുക്ക് ഇച്ചിരി പ്രായമായതുകൊണ്ട് അതൊക്കെ ഇനി ഇപ്പം പഠിക്കാൻ പോവുമ്പം മനുഷ്യർ നമ്മളെ കളിയാക്കും ഇനി ഇപ്പോൾ ഈ പ്രായത്തിൽ ഇവളൊക്കെ എന്ത് പഠിക്കാനാണ് ഇനി ഇപ്പോൾ ഇത് പഠിച്ചിട്ടെന്ത് നേടാനാണെന്നൊക്കെ ചോദിക്കും എന്നാലും നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് നമുക്ക് ആഗ്രഹങ്ങളില്ലേ അപ്പോൾ നമുക്ക് ആ ഗിത്താർ പഠിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളെ പഠിപ്പിക്കണം അന്നൊക്കെ ഞാനപ്പം മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വിട്ടു ഒരാൾ പഠിച്ചു പിന്നെ ഒരാളെ കൊണ്ടുവന്ന് ചേർത്തിട്ട് പിള്ളേർ പകുതിയായപ്പോൾ ഇട്ടിട്ട് പോന്നു പിന്നേക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ മകളെ കൊണ്ടുവന്ന് ഞാൻ ഡാൻസ് പഠിപ്പിച്ചു അവൾ ഡാൻസ് അത് പഠിച്ചു സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അവൾ ആ ഡാൻസ് കളിച്ചിട്ടുണ്ട് അവൾക്ക് നിരവധി സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട് പിന്നെ എനിക്ക് വാദ്യോപകരണങ്ങൾ വായിക്കാനായിട്ട് ഞാൻ മകളെ പഠിപ്പിച്ചില്ല പക്ഷേ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇനി ഇപ്പോൾ ആഗ്രഹമെന്ന് പറഞ്ഞാൽ എനിക്കും ഈ ഗിത്താറ് വായിക്കാൻ പഠിക്കണമെന്നെനിക്ക് ഭയങ്കരം ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കത് സാധിക്കുമോ എന്നറിയത്തില്ല കാരണമിപ്പോൾ എനിക്ക് ഏജാവാറായതുകൊണ്ട് എനിക്ക് എന്നെ വീട്ടിൽ നിന്ന് വിടുമോയെന്നും അറിയത്തില്ല ഞാനെൻ്റെ ഈ ആഗ്രഹം മക്കളോട് പറഞ്ഞപ്പോൾ അമ്മ എന്തിനാണ് ഇനിയും പഠിക്കാൻ പോവുന്നത് അമ്മക്ക് ഇനി ഇത്രയും പ്രായമായില്ലെ എന്നൊക്കെയാണ് മക്കൾ പറയുന്നത് പിന്നെ എനിക്കാണെങ്കിൽ ഇഷ്ടമാണെന്ന് വച്ചാൽ പടം വരയ്ക്കുന്നതാണ് പടം വരയ്ക്കുന്നവരെ എനിക്കിഷ്ടമാണ് പടം വരയ്ക്കാനും എനിക്കിഷ്ടമാണ് ഞാൻ വീട്ടിലൊക്കെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ചുമ്മാതെ പേപ്പറിലൊക്കെ ഇങ്ങനെ വരച്ച് നോക്കാറുണ്ട് ചിലതൊക്കെ ഒക്കാറുണ്ട് ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും എനിക്ക് ചി ലവരുടെയൊക്കെ മുഖഛായകളൊക്കെ ഞാൻ വരച്ച് വെക്കാറുണ്ട് അപ്പം ചിലതൊക്കെ അതിനോട് സാമ്യം തോന്നും അപ്പോൾ അങ്ങനെയൊരു കഴിവെനിക്കുണ്ട് അപ്പം എനിക്ക് പടം വരയ്ക്കണമെന്നുണ്ട് പക്ഷേ അതൊന്നെനിക്ക് പണ്ട് കാലങ്ങളിൽ പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഞാനെപ്പോഴും ഓർക്കും ദൈവമേ അന്നൊക്കെ ഇന്നത്തെ ഒരു കാലമായിരുന്നെങ്കിൽ നമ്മൾക്കെല്ലാം നമ്മുടെ കഴിവുകളെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മൾക്ക് ആ രീതി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു ഇന്നത്തെ കാലത്തെല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട് കുട്ടികളൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുകയാണ് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ചത് കൊണ്ടാണല്ലോ ദൈവമേ എനിക്കിതിനൊന്നും അവസരം കിട്ടാതെ പോയത് ഇടക്കൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് അപ്പം ഇനി ഇപ്പോൾ അടുത്ത ജന്മത്തിലാണെങ്കിൽ പോലും എനിക്ക് ഡാൻസ് പഠിക്കണം എന്നാഗ്രഹമുണ്ട് എനിക്ക് പിന്നെ ഗിത്താറ് പഠിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം സ്ത്രീകളൊക്കെ ഇപ്പം നമ്മൾക്കങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നാലും സ്ത്രീകളൊക്കെ പൊതുവെ ഇപ്പം ചെണ്ട മേളങ്ങൾ അതൊക്കെ പഠിക്കുന്നുണ്ടിപ്പോൾ അപ്പം പല സ്ഥലങ്ങളും സ്ത്രീകളുടെ ചെണ്ട ശിക്കാരി ഒരു മേള അതിപ്പം നമ്മൾ പഠിച്ചാലും നമ്മളെ പുറത്തൊന്നും നമ്മളെ ഇതിന് വിടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം ആ ആഗ്രഹം അങ്ങ് മാറ്റി വെക്കുവാണ് എന്നാൽ എനിക്കത് കാണുന്നത് ഇഷ്ടമാണ് അത് കൊട്ടുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്തായാലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് എനിക്ക് ഡാൻസ് കളിക്കാനും ഡാൻസ് പഠിക്കാനും പാട്ട് പാടുന്ന പഠിക്കാനും പിന്നെ ഗിത്താറ് വായിക്കാനുമാണ് അപ്പോൾ അതെനിക്ക് ഇപ്പോൾ ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് സാധിക്കുമോയെന്നാണ് ഞാൻ നോക്കുന്നത് അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ദൈവം സഹായിച്ച് ഒരു ഇടപെടട്ടേയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു